ഞങ്ങ ഞങ്ങളുടെ പ്രദേശത്തിപ്പോൾ ലഭ്യമായിട്ടുള്ള വിനോദ വിനോദ വിനോദ സാദ്ധ്യതകളെന്നു പറയണത് ഇപ്പോൾ കനോലി പ്ലോട്ടുണ്ട് തേക്ക് മ്യൂസിയം ഉണ്ട് അതു പോലെ തന്നെ ആഢ്യംപാറ വെള്ളച്ചാട്ടം എന്താണ് അതൊക്കെയാണ് ഉള്ളത് തേക്ക് മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ തേക്ക് തേക്കുള്ള ഒരു മ്യൂസിയമാണ് അത് തേക്കുകളെ പലതരം തേക്കുകൾ ഉണ്ടവിടെ പിന്നതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് എല്ലാ വിനോദസഞ്ചാരികൾക്കൊക്കെ വന്ന് എന്താണ് മരം കൊണ്ട് അതായത് തേക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളും ഇതും പിന്നെ തേക്ക് ൻ്റെ ഇത് പല രൂ ഫോ എന്താ രൂപങ്ങളും തേക്കിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ തേക്ക് മ്യൂസിയത്തിലുണ്ട് പലതരം തേക്കുകളുണ്ട് പിന്നതുപോലെതന്നെ അവിടെ ഒരു എന്താ ഗാർഡൻ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ട് ആ പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പൂമ്പാറ്റകളൊക്കെ വന്നിരുന്നു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നല്ല കാഴ്ച തന്നെയാണ് അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മഞ്ചേരിയിലാണ് താമസിക്കണെ ഞങ്ങൾക്ക് മലപ്പുറത്ത് മലപ്പുറത്ത് ഒരു കോട്ട കുന്നുണ്ട് കോട്ടക്കുന്നിൽ എന്താ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കണ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ പോയിരുന്ന് പോയിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിലും അത്രയും ദൂരം കുറച്ച് ദൂരം പോയിട്ടുവേണം കാണാൻ മഞ്ചേരിയിൽ എന്നു വെച്ചാൽ കൂടുതലായിട്ട് ഒരു പാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുട്ടികൾക്ക് കുട്ടികൾക്കായാലും നമ്മുടെ പിന്നെ പോയിരുന്നുകാണാനും കുറച്ചു സമയം ചിലവഴിക്കാനും പറ്റിയൊരു നല്ലൊരു മ്യൂസിയമായാലും പിന്നതുപോലെ തന്നെ പാർക്കായാലും ഒക്കെ കുറവാണ് അതൊരു വലിയ പോരായ്മ തന്നെയായിട്ട് ഞങ്ങൾ കരുതുന്നു